ഞാൻ കേരള സംസ്ഥാനത്താണ് ജീവിച്ച് ഇന്നേവരെ എൻ്റെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോയത് കേരള സംസ്ഥാനം ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായി കാണപ്പെടുന്ന അതായത് തമിഴ്നാടിനും കർണാടകയ്ക്കും ഒക്കെ ഇടയിൽ ഏറ്റവും താഴെ ഭാഗത്ത് തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ സാക്ഷരതയിലൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുപോലെതന്നെ ആരോഗ്യരംഗത്തും മറ്റ് എല്ലാ രംഗത്തും നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ മികവ് കാട്ടിയിട്ടുണ്ട് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമായത് ആയിട്ട് വളരെ കുറച്ചു കാലഘട്ടം അതായത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ സ്വതന്ത്രം ആയത് അപ്പം ആ സമയത്തൊക്കെ അതുവരെ അതിപ്പോൾ അതിന് മുമ്പുവരെ കേരള സംസ്ഥാനം എന്നു പറഞ്ഞില്ലായിരുന്നു മൂന്ന് പ്രവിശ്യകളായിരുന്നു ഗവൺമെൻ്റ് ബ്രിട്ടീഷ് ഗവൺമെൻ്റ് അണ്ടറിൽ ഉണ്ടായത് അതായത് തിരുവിതാംകൂർ കൊച്ചി മലബാർ ഇങ്ങനെ മൂന്ന് പ്രവിശ്യകളായിട്ടായിരുന്നു

കേരളം സംസ്ഥാനം അതായത് ഐക്യകേരള സംസ്ഥാനം എന്നു പറഞ്ഞിട്ടൊരു ഐഡിയോളജി അല്ലായെങ്കിലൊരു കാഴ്ചപ്പാട് മുന്നോട്ടു കൊണ്ടു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട സമ്മേളനം നടന്നിരുന്നു ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഏപ്രിൽ ഒന്നിന് തൃശ്ശൂരിൽ വച്ചിട്ട് കെ കേളപ്പൻ കെ കേളപ്പൻ എന്നു പറയുന്നൊരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ നേതൃത്വത്തിൽ ഒരു സമ്മേളനം നടന്നിരുന്നു സോ അതൊക്കെ കഴിഞ്ഞതിനുശേഷം ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് നമ്മുടെ ഗവൺമെൻ്റ് തന്നെ ഇപ്പോൾ നമ്മുടെ ഭരിക്കുന്ന ഭരണകൂടം തന്നെ നമ്മുടെ തിരുവിതാംകൂറും അതുപോലെതന്നെ കൊച്ചിയും പ്രവിശ്യകളെ ഒന്നിപ്പിച്ച് ഒന്നിച്ചു ചേർത്ത് തിരുക്കൊച്ചി രൂപീകരിച്ചു

എന്നു പറയുന്ന ആൾ അതിൻ്റെ ചെയർമാനായിരുന്നു ആ കമ്മീഷൻ്റെ അതിനുശേഷം വരുന്നത് ആ പണ്ഡിറ്റൽ ഹൃധ്യാനന്ത് കുൻശ്രു അതുപോലെതന്നെ സർദാർ കെ എം പണിക്കർ എനിക്ക് ഇവരുടെ പേരുകൾ മാത്രമേ ഓർമ്മയുള്ളൂ അപ്പം ഇവർ മൂന്നുപേർ നമ്മുടെ

കാൽ വെപ്പുകൾ വെക്കുന്നുണ്ടായിരുന്നു ഇതാണ് കേരള സംസ്ഥാനം അല്ലെങ്കിൽ അതിന് രൂപീകരണം അതിനു പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അവർ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനാകുന്നത്